കേരളീയരായ നമ്മൾ കർഷക കാർഷിക പാരമ്പര്യമുള്ളവരാണെന്നറിയാമല്ലോ നമ്മൾ ചെയ്യുന്ന കാർഷിക ഉത്പന്നങ്ങളായ തേങ്ങ റബ്ബർ മുതലായ എണ്ണ എണ്ണ തരുന്ന ഇത് നെല്ല് മുതലായ ഉൽപ്പന്നങ്ങൾ യാതൊരു മധ്യവർത്തികളാരുമില്ലാതെ കയറ്റുമതി ചെയ്യാൻ വേണ്ടിയിട്ട് കർഷകർക്കായിട്ട് നമ്മൾ അവർക്ക് പ്രത്യേകമായ സെമിനാറുകളും ക്ലാസുകളുമൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് എടുത്ത് കഴി എടുത്തുകൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് സ്വയമേ അവരുടെ കാർഷിക ഉൽപന്നങ്ങളെ കയറ്റുമതി ചെയ്യാനുള്ള പുതിയ രീതിയിലുള്ള ടെക്നോളജി പുതിയ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ അവർക്ക് ചെയ്യാൻ സ്വയം പ്രാപ്തരാക്കണം അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ കേരളത്തിൽ ഇപ്പോൾ തൊഴിൽ തൊഴിൽ മേഖലകളിലെ സ്ത്രീകളെ മുൻനിർത്തിക്കൊണ്ട് സ്ത്രീകൾ സ്വയം കൃഷി ചെയ്യുകയും അവരുടെ അവർക്ക് കിട്ടുന്ന ഉൽപ്പന്നങ്ങളെ അവർ തന്നെ സ്വയമേ മേളകളൊക്കെ ഉണ്ടാക്കിയും അല്ലെങ്കിൽ അവർക്ക് കയറ്റുമതി ചെയ്യാനായിട്ട് അല്ലേൽ അതിൻ്റെ ആ ഉൽപ്പന്നങ്ങളെയൊക്കെ നല്ല രീതിയിൽ ചെലവഴി വിറ്റഴിക്കാനായിട്ട് അവർക്ക് സാധിക്കുന്നുണ്ട് പിന്നെ മത്സ്യ സമ്പത്ത് മുൻധാരണ സമുദ്ര മേഖലയുടെ അടുത്തായിട്ടുള്ള സ്ഥലം കൂടുതൽ കേരളത്തിൽ ഉള്ളതുകൊണ്ട് സമുദ്ര ഉൽപ്പന്നങ്ങളും അത് ചെമ്മീൻ അതുപോലെയുള്ള മത്തി അയല അങ്ങനെയുള്ള ഉൽപ്പന്നങ്ങളും നമ്മൾക്ക് കർഷകരായ മത്സ്യ സമ്പ സമ്പത്ത് കൂടുതലുള്ള അവർക്ക് അതിന് കയറ്റുമതി ചെയ്യാനായിട്ടുള്ള മാർഗ്ഗങ്ങളൊക്കെ കർഷകർക്ക് എടുക്കുന്നതിനുള്ള അതിന് പ്രാപ്തരായ വിദ്യാസമ്പന്നരായ ആളുകൾ അവർക്ക് സ്വയം വിദ്യാഭ്യാസം അതിൽ കൊടുത്തുകഴിഞ്ഞാൽ അവർക്ക് ആ മേഖലകളിൽ സ്വയം കയറ്റുമതി ചെയ്യാനുള്ള അത് സാധിക്കും അതുപോലെത്തന്നെ കയർ ഉൽപ്പന്നങ്ങൾ മാറ്റുകൾ അതുപോലുള്ള കയർ കർഷകരുടെ തെങ്ങിൻ്റെ നാരിൽ നിന്നുണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾ അതൊക്കെ ആ ഉൽപ്പന്നങ്ങളും മറ്റ് രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യാനും സ്വയമേ അവർക്ക് അത് അത് ചെയ്യാനുള്ളതിനുവേണ്ടിട്ടുള്ള ആ അവയർനസ് കൊടുക്കാൻ നമുക്ക് അവർക്ക് കൊടുക്കുകയാണെങ്കിൽ അവർക്ക് സ്വയമേ ചെയ്യാൻ മറ്റുള്ള ആളുകൾ അവരെ ചൂഷണം ചെയ്യാതിരിക്കാനും കയറ്റുമതി ചെയ്ത് വിടാൻ മറ്റു രാജ്യങ്ങളിലേക്ക് വിടാനായിട്ട് സാധിക്കും എന്നുള്ളതിലും ശരിയായ ഒരു കാര്യമാണ് അതിനെ അവർക്ക് അതിന് അതിന് പ്രഗൽഭരായ വിദ്യാസമ്പന്നരായ ആളുകൾ അവർക്കതിനുള്ള പ്രോഗ്രാമിനുകൾ പഞ്ചായത്ത് തലത്തിലും അതുപോലെത്തന്നെ കുടുംബശ്രീ തലത്തിലും ഒക്കെ അറേഞ്ച് ചെയ്ത് അവരെ പഠിപ്പിച്ചുകൊടുത്താൽ സ്വയമേ മധ്യവർത്തികളില്ലാതെ അവർക്ക് സ്വയം കയറ്റുമതി ചെയ്യുവാനായിട്ട് സാധിക്കും എന്നതാണ് എൻ്റെ അഭിപ്രായം ഞാനാ അഭിപ്രായത്തോട് യോജിക്കുന്നു